വാർത്താമാധ്യമങ്ങളിൽ പരിപാടികളിൽ ടി വി ചാനലുകളിൽ പരിപാടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് വാർത്ത തന്നെയാണ് വാർത്തകളുടെ ലോകം ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് കഴിഞ്ഞുപോയ സംഭവങ്ങൾ മാത്രമല്ല വാർത്ത എന്ന് പറയുക തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്കാണ് ടി വി ചാനലുകളിൽ പ്രാധാന്യം ഇടയ്ക്കൊരു ഫ്ലാഷ്ബാക്ക് പോലെ കഴിഞ്ഞതിലേക്കൊക്കെ തിരിച്ചുപോവാൻ പറ്റും പക്ഷേ അങ്ങനെയല്ല നമുക്ക് വാർത്തകൾ തുടർച്ചയായിട്ട് വാർത്തകളുടെ ഒരു തള്ളിക്കയറ്റമാണ് ആധുനിക ലോകം എന്ന് പറയുന്നത് ടി വി ചാനലുകളിൽ സംബന്ധിച്ച് ഒരു വാർത്തയിൽ നിന്ന് അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ് എനിക്ക് മിക്കവാറും ഏഷ്യാൻറ്റ് ന്യൂസിലെ ഒൻപത് മണിയുടെ വാർത്തയാണ് ഇഷ്ടം അത് മറ്റ് കാരണം മറ്റു പല വാർത്താ അവതരണങ്ങളും ചർച്ച പോലെ അല്ലെങ്കിൽ ഈ ചർച്ചകളിൽ അതിൻ്റെ അവതാരകൻ്റെ ഒരു പ്രാഗൽഭ്യം കാണിക്കാനുള്ള ഒരു രീതി മുന്നിട്ട് നിൽക്കുന്നുണ്ട് അവതാരകൻ അവിടെ അമിത പ്രാധാന്യം കൊടുക്കുന്ന പോലെ ചർച്ചകളിലുണ്ട് അപ്പോൾ അവതാരകൻ മൈക്ക് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ താനാണ് വിധികർത്താവ് എന്നുള്ള രീതിയിൽ അവസാനം വിധി പറയുന്ന രീതിയിലേക്ക് ഒരു ജഡ്ജിയുടെ പവറോടുകൂടി ഇരിക്കുന്ന അവതാരകനെ അല്ലെങ്കിൽ ചർച്ച നയിക്കുന്ന ആൾ അത്രമേൽ ജനത്തിന് പിടിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് വാർത്തകൾ കൃത്യമായിട്ടതിൻ്റെ അത്യാവശ്യം ചില ഭാഗങ്ങളോട് കൂടി ഇപ്പോൾ ഒരു ബസ്സ് അപകടം നടന്നെങ്കിൽ ബസ്സ് അപകടം നടന്ന സ്ഥലത്തെ സംഭവ സ്ഥലത്ത് നിന്നുള്ള ഏതാനും റിപ്പോർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നു അപ്പോൾ ആ റിപ്പോർട്ടുകളും ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആ സ്ഥലം മനസ്സിലാക്കാനും അവിടെ എന്ത് സംഭവിച്ചു എന്ന് എങ്ങനെയാണ് അതിൻ്റെ അപകടാവസ്ഥ എന്നൊക്കെയുള്ള കാണാനും ഈ ചാനലിൽ സാധിക്കും മറ്റു പല ചാനലുകൾക്കും ഉണ്ട് ചില വാർത്തകൾ ഇപ്പോൾ കൈരളി ചാനലിൽ വാർത്തകാണാൻ പോയാൽ പലപ്പോഴും അതിലൊരു സത്യസന്ധത ഒരു വിശ്വാസ്യത എന്നൊന്ന് പറഞ്ഞ സാധനമില്ല രാഷ്ട്രീയ പക്ഷപാതിത്വം ഇത്തരം വാർത്തകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഏഷ്യാൻറ്റ് ന്യൂസിന് രാഷ്ട്രീയ പക്ഷപാതിത്വം ഇല്ല എന്നല്ല കുറേയൊക്കെ രാഷ്ട്രീയ പക്ഷപാതിത്വം ഉണ്ടെങ്കിലും ഭരിക്കുന്ന കക്ഷിയോട് എപ്പോഴും ഏറ്റവും എതിർപ്പ് രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു അവതരണരീതിയാണ് അതിനകത്തുള്ളത് ഭരണത്തിന് എതിരെ ഒരു ഭരണവിരുദ്ധമായ ചില തരംഗങ്ങൾ എന്ന് വിചാരിച്ച് ഭരിക്കുന്ന കക്ഷികൾ ചെയ്യുന്നത് എല്ലാം മോശമാണെന്നുള്ള ചിന്താഗതിയുമില്ല നല്ലതിനെ നല്ലതായിട്ടും ചീത്ത ചീത്തയായിട്ടും കാണുവാനുള്ള ആ അവതാരകൻ്റെ അല്ലെങ്കിൽ വാർത്ത വായിക്കുന്നവൻ്റെ കഴിവ് അതൊരു പരിധി വരെ വാർത്ത കാണുന്ന ആളെയും സ്വാധീനിക്കും നമ്മൾ നിരന്തരം കാണുന്ന ചാനലിൽ വരുന്ന വാർത്തയാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമായ വാർത്ത അതുകൊണ്ട് തന്നെ ആ വാർത്ത ചാനൽ അവതരിപ്പിക്കുന്ന വാർത്തകളെല്ലാം നൂറ് ശതമാനം സത്യസന്ധവും വിശ്വസനീയവും ആണ് എന്നതാണ് നമ്മൾ ധരിക്കുക പക്ഷെ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ചില പക്ഷപാതിത്തങ്ങളുടെ പേരിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില അന്തർനാടകങ്ങളും നമുക്ക് അറിയാതെ പോകും ന്നുണ്ടാകും പക്ഷെ പല ചാനലുകളും മാറി മാറി കണ്ടിട്ടും നമുക്ക് ഈ ചാനലിലെ ഈ വാർത്താപരിപാടി അത് ചർച്ചയല്ല ഈ വാർത്താപരിപാടി വളരെ ഏറെ ഇഷ്ടമാണ് നമ്മളതിന് ഇനിയും അതിനകത്തെ ചില അവതാരകർ അവരുടെ വാർത്താ വായന രീതി പ്രേത്യേകിച്ച് അളകനന്ദ പോലുള്ള ആളുകളുടെ വാർത്ത എത്രയോ വർഷങ്ങളായിട്ട് വാർത്ത വായിക്കുന്നു അവരുടെ ആ വാർത്ത വായനയുടെ സ്പുടതയും അവരുടെ ആ ആംഗ്യങ്ങളുടെ ഓരോ സവിശേഷതയും ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് അമിതമായ ഭാവപ്രകടനങ്ങളൊന്നുമില്ല എന്നാൽ ആശയം വളരെ വ്യക്തമായിട്ട് വായനക്കാരന് മനസ്സിലാകുന്ന കേൾവിക്കാരന് മനസ്സിലാകുന്ന വിധത്തിലേക്ക് എത്തിച്ച് തരുന്നതിന് ഈ ചാനലിന് ഏറെക്കുറേ സാധിക്കുന്നുണ്ട് അപ്പോൾ റേഡിയോ പരിപാടികളുടെ ഒരു കാലം ഏറെക്കുറേ കടന്ന് പോയി എന്ന് പറയാമെങ്കിലും ഇപ്പോളും അങ്ങനെ അല്ല റേഡിയോ പരിപാടികൾ രാവിലത്തെ പ്രാദേശിക വാർത്തകളൊക്കെ കേൾക്കുന്നതിൽ വലിയ അപാകതയില്ല അതൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ മറ്റ് വാർത്താ ചാനലുകളും കാണുന്നില്ല എന്നല്ല മറ്റ് വാർത്താ ചാനലുകളും കാണുന്നുണ്ട് അതിൽ നിന്നാണല്ലോ നമ്മൾ പല വാർത്താ ചാനലുകൾ കാണുന്നതിൽനിന്നാണല്ലോ ഒരു വാർത്ത ചാനലിനെ അല്ലെങ്കിൽ ഒരു ചാനലിനെ തെഞ്ഞെടുക്കുന്നത് നിരന്തരം ഈ വാർത്താ ചാനലിൻ്റെ മുമ്പിലാണ് എന്ന് ചിന്തിക്കരുത് കാരണം മറ്റ് കോമഡി പരിപാടികളും സംഗീത പരിപാടികളും സിനിമ പരിപാടികളും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ വാർത്താ മാധ്യമങ്ങൾ അങ്ങനെയുള്ള മാധ്യമത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് അല്ല അത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് അതിൽ നിന്നും അർഥമാക്കാൻ പാടില്ല നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പരിപാടി ഈ വാർത്ത തന്നെയാണ് കാരണം വാർത്തകളില്ലാത്ത ലോകമില്ല അവസാനം നമ്മൾ വാർത്ത ആകുന്നത് വരെ നമുക്ക് വാർത്തകളിങ്ങനെ വന്ന് കൊണ്ടേയിരിക്കും വാർത്തകൾ അനുനിമിഷം വളരുകയാണ് വാർത്തകൾ ഭാവിയിലേക്കില്ല അതിന് വാർത്തകൾക്ക് ബോധവും വർത്തമാനവുമേ ഉള്ളൂ അപ്പോൾ ഈ വർത്തമാന കാലത്തിൽ നിരന്തരം സഞ്ചരിക്കുന്നു ഈ വാർത്താമാധ്യമങ്ങൾ ഇപ്പോൾ സ്പോർട്സ് നടക്കുകയാണെങ്കിൽ അല്ലേ ഒളിമ്പിക്സ് നടക്കുകയാണെങ്കിൽ ആ ഒളിമ്പിക്സ് നടക്കുന്ന വേദിയിലേക്ക് എല്ലാ ചാനല്കൾക്കൊന്നും റിപ്പോർട്ടർമാരെ അയക്കുന്നില്ല ഏഷ്യാനെറ്റ് ന്യൂസിന് അവർക്ക് പ്രത്യേക റിപ്പോർട്ടറുകളുണ്ട് അതുപോലെ വിദേശത്ത് അവരുടെ ഈ ചാനലിലെ ഒക്കെ അമേരിക്ക ലോകം റൗണ്ടപ്പ് ഏഷ്യൻ റൗണ്ടപ്പ് ഒക്കെ ഉണ്ട് റൗണ്ടപ്പ് ഒക്കെ നമുക്ക് കാണുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഒരു ലോക ഏഷ്യാനെറ്റ് ജാലകം അപ്പോളിത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണുകയും അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനും എല്ലാം സാധിക്കും അപ്പം ലോകം എപ്രകാരം വളരുന്നു ഇപ്പോൾ ട്രമ്പ് അമേരിക്കൻ പ്രെസഡെൻറ്റ് ആയി ട്രമ്പിൻ്റെ നേട്ടങ്ങളെന്തൊക്കെ കോട്ടങ്ങൾ എന്തൊക്കെ മുൻപ് ട്രമ്പ് ഭരിച്ചിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ഇനി ട്രമ്പിൻ്റെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് ഏത് വിധത്തിലായിരിക്കും അദ്ദേഹം ലോകമേധാവിത്വം കയ്യാളുന്നത് യുദ്ധങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകച്ച് പലസ്തീൻ യുദ്ധത്തിൻറ്റെ കാര്യത്തിൽ ട്രമ്പിൻ്റെ നിലപാട് എന്താണ് യുക്രൈൻ യുദ്ധത്തിൻറെ കാര്യത്തിൽ ട്രമ്പിൻ്റെ നിലപാടെന്താണ് ഇതെല്ലാം ലോകം ആകാംഷയോടെ കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ് പക്ഷെ ഇത് കുടുംബത്തിൽ എല്ലാവർക്കും ഇത് അത്രമേൽ രസകരമാകണമെന്നില്ല എങ്കിലും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുക അത് വൈകീട്ട് ഒൻപത് മണിൻ്റെതാണ് പ്രധാനമായിട്ട് കാണുക അപ്പോഴാണ് നമ്മൾ എറ്റവും അധികം ഫ്രീ ആകുന്നത് ഒരു ദിവസത്തിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഏറ്റവും അധികം ഫ്രീയാകുന്ന ഒരു സമയമാണ് ഈ വൈകുന്നേരം ഒൻപത് മണി എന്നുള്ളത് ഉച്ചയ്ക്കത്തെ വാർത്തയും രാവിലത്തെ വാർത്തയും ഒക്കെ കാണുന്നുണ്ട് എങ്കിലും അത് നമ്മുടെ കാപ്പിയോടൊപ്പമോ ഉച്ച ഭക്ഷണത്തോടൊപ്പമോ ഒക്കെ ഇങ്ങനെ ഒഴുകി കടന്ന് പോവുകയുള്ളൂ അതിന് വേണ്ടത്ര ഒരു ഗൗരവമോ പ്രാധാന്യമോ ഒന്നും വരുന്നില്ല അപ്പോളതുകൊണ്ട് പക്ഷേ ഏറ്റവും കൂലങ്കഷമായിട്ട് ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്ന ഈ വാർത്ത ഒൻപതുമണിയുടെ വാർത്ത അതിനുശേഷം പിന്നെ കിടന്ന് ഉറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോളതുകൊണ്ട് നമ്മൾ ഈ വാർത്താ ചാനലിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ഞങ്ങളുടെ ഈ തലമുറയുടെ പ്രത്യേകതയാണോ അത് വരും തലമുറകൾക്ക് ഇത് പരിപാടികളോട് അത്രമേൽ പ്രാധാന്യം താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല